ഹലോ

ആ എന്താണ് രമ്യയാണോ ആ തെക്കടത്തെയാണ് അല്ലേ എന്നാണ് രമ വിളിച്ചത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അല്ലേ ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട് നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ആരും വരുത്തുന്നില്ല ഒരാൾ ഉള്ളത് അങ്ങേ സ്വതന്ത്ര മുക്കിൻ്റെ അവിടെയുള്ള ഒരു മറ്റേ ചാക്കോച്ചി അച്ചായൻ മാത്രമേ വരുത്തുന്നുള്ളു ഞാൻ അത് അവിടെ സംസാരിച്ചിട്ട് ഉടനെത്തന്നെ റെഡി ആക്കാം എന്നത്തേക്കാണ് നിങ്ങൾക്ക് എന്നത്തേക്ക് തൊട്ടാണ് വേണ്ടത് നാളെ ഞാൻ ഇന്നു അവിടെ ഒന്ന് വിളിച്ചു നോക്കാം ഞാൻ അല്ലെങ്കിൽ പോയിത്തന്നെ നോക്കാം എന്നിട്ട് നാളെത്തൊട്ട് കിട്ടുമെങ്കിൽ ഞാൻ നാളെ തന്നെ തരാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ കഴിഞ്ഞാവും കുഴപ്പമില്ലല്ലോ ആ ആയിക്കോട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊച്ചിനെയാണ് വിട്ടത് കൊച്ച് അവിടെ വലിച്ചെറിയുമയിരുന്നു എന്ന് പറയുന്നത് കേട്ടു ഒന്ന് രണ്ടു പേർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞു അതെ അല്ലേ ഇപ്പോൾ ഞാൻ പ്രത്യേകം അവനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞോളാം എനിക്കേ കാലിനൊക്കെ വേദന ആയത് കൊണ്ട് ഞാൻ അല്ല വന്നത് മോനാണ് വന്നത് ഒന്നും പറയേണ്ട ഇപ്പോൾ ശരിയായി ഞാൻ അപ്പം നാളെ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയി റെഡി ആക്കി നമുക്ക് ഉടനെ തന്നെ ശരിയാക്കാം കേട്ടോ ആ മാഗസിൻസ് ഉണ്ട് മാഗസിൻസും ഉണ്ടല്ലോ കൗമുദി മറ്റേ ആഴ്ചപതിപ്പ് എല്ലാം ഉണ്ട് ഏതെങ്കിലും വേണോ വനിത വേണോ ആഴ്ചയിൽ അല്ലെ ആഴ്ചയിൽ ഇട്ടേക്കാം വനിത ഇട്ടേക്കാം ആ മാസത്തിൽ വേണം ആ ഓക്കെ ഓക്കെ ശരി കേട്ടോ ഓക്കെ